ഹലോ

എനിക്കൊരു കിലോ കരിമീൻ വേണമായിരുന്നു ഞാ ഞാൻ കൊടിക്കുന്നിൽ ന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒരു കിലോ കരിമീൻ വേണം മ് എന്നാ വെ ആ ഹോം ഡെലിവറി ചെയ്താൽ മതി എന്നാണ് വില അതെന്താ അത്രയും വില ഞങ്ങള് അപ്പുറത്തെ കടയില് ചോദിച്ചിട്ട് അത്രയും വിലയില്ലല്ലോ ഓ അത് അത് അല്ല അവിടെ ത അവിടെ ചോദിച്ചതിൻ്റ ഫ്രഷായിട്ടുള്ള സാധനമായിരുന്നു ഇത്രയും വിലയില്ലല്ലോ അവിടെ എന്നാ ഫാമിൽ വളർത്തിയതാന്ന് പറഞ്ഞാലും ഞങ്ങള് അപ്പുറത്ത് ചോദിച്ചു രണ്ടുമൂന്നു കടയിൽ ചോദിച്ചിട്ട് ഇത്രയും വിലയൊന്നും ഇല്ലായിരുന്നു പിന്നെ നിങ്ങൾക്കെന്നാ ഇത്ര പ്രത്യേകത അല്ല നിങ്ങള് സ്പെഷ്യല് ഫുഡ് കൊടുത്തോട്ടെ എങ്കിലും നമ്മളുടെ നാട്ടു നടപ്പില് ഒരു രീതിയില് ഒരിടത്ത് ഒരു വില ഇ ഇവിടെ അടുത്ത കടകളിലെല്ലാം ഒരേ വിലയാണ് അപ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നാ അല്ല നിങ്ങള് ഓർഗാനിക്കുള്ള ഫുഡ് കൊടുക്കുവോ എന്ത് ഫുഡ് കൊടുക്കുവോ ഞങ്ങളുടെ കാര്യമല്ല ഹോം ഡെലിവറി ഇല്ല അവിടെ മറ്റുള്ള കടകളിലും ഹോം ഡെലിവറി ഉണ്ട് അല്ലല്ലല്ല മറ്റുള്ള കടകളിലുമുണ്ട് ഹോം ഡെലിവറി ഉണ്ട് അവരെല്ലാം നല്ല ക്ലീൻ ചെയ്ത് നന്നായിട്ടാണ് തരുന്നത് അന്നാലും നിങ്ങളുടെ ഇത്രയും ചാർജ് അവര് പറഞ്ഞില്ല

അല്ല നിങ്ങള് നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ വീടിൻ്റെയോ ഇതിൻ്റെ വിലയൊന്നും അല്ല ഞങ്ങള് ചോദിച്ചത് ഞങ്ങളൊരു കിലോ കരിമീൻ്റെ വിലയാണ് ചോദിച്ചത്

ആ ഏതായാലും കൊള്ളാം നിങ്ങളുടെ ഈ കരിമീന് മാത്രം ഇത്രയും വില എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഓർഗാനിക് സാധനങ്ങൾ ഓക്കെ മാം നിങ്ങളുടെ കരിമീനൊക്കെ ഓക്കെ നിങ്ങള് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നത് എല്ലാം ഓക്കെ പക്ഷേ നിങ്ങള് കരിമീനിന് വില കൂടുതലാണ് കാരണം വെച്ചാൽ മറ്റുള്ള നമ്മള് ഇനിയും കസ്റ്റമറ് വരികയോ പിടിക്കുകയോ ചെയ്യണമെങ്കില് മാം നിങ്ങള് ഇച്ചിരിയും കൂടെ റേറ്റൊക്കെ കുറച്ച് കൊടുത്തെങ്കിൽ മാത്രമേ കസ്റ്റമറ് വരത്തുള്ളൂ ഇനി ഞങ്ങളായാലും ഏതെങ്കിലും ആരോടെങ്കിലും ഒന്ന് പറയുമോ കരിമീൻ വേ ഇവിടെ ഉണ്ട് നല്ല അവൈലബിളാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ കടയിലാരെലും വരണമെങ്കിൽ നിങ്ങള് വില കുറച്ച് കൊടുക്കണം ഓക്കെ ആ ഓക്കെ മാം എങ്കിലൊര് കാര്യം ചെയ്യ് ഏതായാലും ഞാൻ ഇത്ര വഴക്കും ബഹളമൊക്കെ ഇട്ടതല്ലെ ഒരു കിലോ കരിമീൻ ഞങ്ങൾക്ക് വേണം ഞാനാ സ്ഥലം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മു മുമ്പേ കൊണ്ടുവരണം ഓക്കെ സമയം പറഞ്ഞ് സ്ഥലം നമ്മള് കൊടിക്കുന്നിൽ പള്ളി കൊടിക്കുന്നിൽ പള്ളിയുടെ തെ തെക്ക് പടിഞ്ഞാറുവശം കളത്തിൽ എന്നാണ് ആ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി എൻ്റെ പേര് നിഷ ഗു പൈസ വരുമ്പോൾ കൊടുത്താൽ തന്നാൽ മതി അതൊ ഗൂഗിൾ പേ ചെയ്യണോ ഓക്കെ ഓക്കെ ഓ ക്യാ ക്യാഷായിട്ട് തരാം വേണമെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ ആ ബില്ലു ആ ബില്ലുകൊടുത്തു വിട്ടേക്കൂ ഓക്കെ ഓക്കെ ഓക്കെ